ഈ കളിക്കാർക്കില്ലെ ഭയങ്കര ഹെൽത്തായിരിക്കും എല്ലാവർക്കും ഉണ്ടാവാണമെന്നില്ല അയാച്ച ഹാഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇപ്പം നമുക്കില്ലെ ഏറ്റോം പ്രധാനമായിട്ട് ആല്ല നമ്മൾ നോക്കിയെങ്കിൽ ഇല്ലെൽ ഉണ്ടാവുന്നത് വിരാട് കോഹ്ലി ഈസ് എ ലെജൻട് അതായത് വിരാട് കോഹ്ലിൻ്റെ ഫിറ്റ്നസ് പറഞ്ഞെങ്കിൽ അയാളന്നെ പറഞ്ഞിന് ഏത് അയാൾ കള്ളുകുടിക്കുന്നുണ്ടായിന് നോൺ വെജിറ്റേറിയൻ ഉണ്ടായിന് അങ്ങനത്തെ എല്ലാ സ്വഭാവും ഉണ്ടായി അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് അയാൾ മാറാത്തോണ് അപ്പോൾ അയാളന്നെ പറഞ്ഞ് ആ സെൽഫ് ലൈറ്റായി ദേ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായി അങ്ങനെയാണ് ഇപ്പോൾ കായിക വിനോദം ഇപ്പം കളിക്കാർക്കെല്ലാം നല്ലോം ഇപ്പോൾ ഡ ചിലപ്പം മുതലേ ഡയറ്റെടുത്ത് ചെറുപ്പം മുതൽ പറയുമ്പോൾ ഒരു പതിനാറ് പതിനെട്ട് വയസ്സ് തൊട്ടേ ഡയറ്റെടുത്ത് ബോഡീ ഫിറ്റ്നസ് മെയിൻ്റെനാക്കി ഇഞ്ചൊറി വരാൻ കൈ ആണ് ഇഞ്ചൊറി വന്നത് ചിലപ്പം കരിയറേ പോവും അപ്പോൾ ഇഞ്ചൊറി വരാണ്ട് നമ്മൾ നോക്കണം അപ്പൊൾ അതിനെല്ലം മെയിന് വേണ്ടതില്ലെ നമുക്കിതാണ് ഫിറ്റ്നെസ്സാണ് ഈ ഫിറ്റ്നസ്സെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന കാര്യമോന്നല്ല ഇപ്പോൾ ഫിറ്റ്നസ്സെല്ലാം വരുന്നെങ്കിൽ കുറെ അതിനനുസരിച്ച് അദ്ധ്വാനിക്കണം ഡേയ്ലി ഇപ്പോൾ നമ്മൾ ഒരു കിലോ ബത്തക്ക തിന്നുന്നതും ഒരു നാലു ഗ്രാ ഗ്രാമ് കട്ല അരച്ചത് തിന്നുന്നതും ഒരേപോലെയാന്നല്ലെ കട്ല അരച്ചത്ണ് പീനട്ട് ബട്ടറ് അത് തിന്നു ഒരേപോലെയാന്നല്ലെ അപ്പോൾ അതിന് അനുസരിച്ച് മാ അതിൻ്റെ ഡയറ്റ് നോക്കണം പ്രോട്ടീൻ ബാണോ പ്രോട്ടീൻ അങ്ങനത്തെ എന്തെല്ലാം സാധനം വേണം ഇപ്പം ജിമ്മിൽ ഇപ്പം പൈസ ഇല്ലാത്ത ആൾക്കാർക്കൊന്നും ജിമ്മിൽ പോകാൻ കയിയൂല്ല അപ്പോൾ അങ്ങനെ പ്രായാൾക്കാർക്കൊന്നും ഇതാവില്ല ഇപ്പോൾ ചെറുപ്പം മുതലേ ഹെൽത്ത് സ്പോർട്സ്ക്കെ ഇങ്ങനെ കായികായിട്ട് നോക്കുമ്പോൾ ഹെൽത്ത് മെയിൻ്റെയിനാക്കി മെയിൻ്റെയിനാക്കീട്ടാകുമ്പോൾ എത്ര വയസ്സു വരേം നമ്മളെ ഹെൽത്ത് അടിപൊളി ആയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർക്കുണ്ടാവും ഈ നാൽപ്പത് വയസാവുമ്പോൾ കാൽ എടുക്കാൻ കഴിയുന്നില്ല നടുകനക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ എല്ലാം നമുക്കങ്ങനെ അല്ല ഒരു നാൽപ്പത് അൻപത് ഇപ്പോൾ കളിക്കാർക്കെല്ലാം അൻപത് അറുപത് വയസ്സ് വരെയല്ലെ ഫിറ്റ്നസ്സ് മെയിൻ്റെനായിക്കെങ്കിൽ ഒ പായാന് വരെ കയ്യും ഇപ്പോൾ മമ്മൂട്ടീനെ എല്ലം കാണുന്നല്ലെ എങ്ങനുണ്ട് എത്ര ഫിറ്റായിട്ടുണ്ട് അയാളൊന്നു ഏടേ പോകുമ്പോൾ ജിമ്മ് വേണം അയാൾക്ക് അത്രാണ് ഇപ്പോൾ ഇതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ എപ്പോഴും ഡേയ്ലി റെഗുലർളി എക്സ്സസൈ എക്സ്സൈസ്സ് ചെയ്ത് എക്സ്സ്സൈ ആക്കുന്ന പിന്നേ ഇത് നല്ല ഫുഡ്ഡ് കഴിക്കുന്ന ഗട്ട് ഹെൽത്ത് നിലനിർത്താൻ അങ്ങനെയെല്ലാം ആക്കിയെങ്കിലല്ലേ നമുക്ക് നല്ല നല്ലതായിരിക്കും ഇപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്ത് വരെ അത് അഫക്റ്റാവുന്നതാണ് ബ്ലെഡ് സർക്കുലേഷൻ അങ്ങനത്തെ എന്തെല്ലാം കുടിച്ച് ചോര തലക്ക് കയറുന്ന അതെല്ലാം നല്ലോണം കൂടും നല്ലോണം ചോര തലക്ക് കയറിയെങ്കിൽ നല്ലോണം ബുദ്ധി കൂടും ബുദ്ധി കൂടിയെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇതെല്ലാം അയ്യൊ നമ്മളെ റെസ്പോൺസീവ്നെസ്സ് കൂടും അങ്ങനത്തെ എന്തെല്ലാം കാര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഫുട്ബോള് ഈ ക്രിക്കറ്റ് ഇങ്ങനത്തെ കളിക്കുന്ന ആൾക്കാർക്കെല്ലാം ഫിറ്റ്നസ് മെയിനായിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കകത്ത് ഇപ്പോൾ ഫാസ്റ്റ് ബോള് ബോളർക്ക് അല്ലെങ്കിൽ ഓർക്കെല്ലം ബോള് വന്നിട്ട് എറിയേണ്ട തീ പോലെ ബോളെറിയണ്ട അപ്പോൾ ബോളെറിയണമെങ്കിൽ ഇത് വേണ്ടെ ഹെൽത്ത് ഫിറ്റ്നസ്സെല്ലാം വേണ്ടെ ഓർക്ക് കേക്ക് അങ്ങനത്തൊന്നും ഷുഗറൊന്നും കുറച്ച് അതൊന്നും അത്ര കൂട്ടാനേ കയ്യ അവർക്ക് കലോറി എല്ലാം കലോറി കുറഞ്ഞ ഫുഡ്ഡും പിന്നെ നല്ല ഹെവി കോണ്ടിറ്റീല് ഫുഡ്ഡും വേണോം പിന്നെ നല്ല പാല തുന്നിട്ട് ആറെ ബേറ് ഫുള്ളാവണം ആടത്തോളം പിന്നെ എപ്പോഴും വെള്ളം കുടിച്ചിട്ടന്നെ ശരീരം ഒണങ്ങാൻ കഴിയുക വെള്ളം കുടിച്ചിട്ടന്നെ നിൽക്കണം ഇപ്പോൾ ഇങ്ങനെയൊന്നുവ ഇപ്പോൾ വിരാട് കൊഹ്ലിയെല്ലം കണ്ടില്ലേ ഡേയിലി നാല് അഞ്ച് ലിറ്ററ് വാട്ടർ കുടിക്കും അതേത് ഏതോ ഹിമാലയെന്നാണ് അങ്ങനത്തെ ഏവിടെന്നോ വരുന്ന ഐസ്സ് ഉരുക്കിയിട്ട് വരുന്ന വെള്ളമാണ് അ വെള്ളാകുമ്പോൾ നാച്ചറൽ നാച്ചൊറലയിട്ട് അതിലന്നെ എല്ലാ കാര്യമുണ്ട് ഈ ബാക്ടിരിയേനെ കൊല്ലാന്യൊ അങ്ങനത്തെ എന്തെല്ലാം സാധനം ബെള്ളത്തിലന്നെ ഉണ്ട് അപ്പോൾ ആ ബെള്ളത്തിലന്നെ ഉണ്ട് പറയുമ്പോൾ അത്രയും ഫിറ്റ്നസ് നോക്കുന്നതല്ലേ ച എല്ല ചില മൈനൂട്ടായിട്ട്ള്ള കാര്യം ഇപ്പോൾ ചങ്കൊമ്പലും വരുന്നുണ്ടെങ്കിലല്ലേ നോ ഈ വെജ്ജെല്ലൊ നോൺ വെജ്ജെല്ലൊ ഒയിവാക്കിയാൽ മതി വെജ്ജ് മാത്രം കൂട്ടിയാൽ മതി ഈ പച്ചക്കറിയെല്ലം തിന്നെങ്കിലാണ് നല്ലത് ഇപ്പോൾ ഇപ്പൊഴത്തെ പച്ചക്കറി നോക്കണ്ട നല്ല പച്ചക്കറി വിഷം കെമിക്കലൊന്നു ഇടാത്ത പച്ചക്കറിയല്ലേ തുന്നണമ്മ ഇപ്പോൾ ഇതെല്ലാം നല്ല നല്ല പാകം നോക്കുവാണിപ്പോൾ ഹെൽത്ത് ഫിറ്റ്നസ്സ് ഇപ്പോൾ മെൻ്റലി നോക്കുമ്പോൾ ഇല്ലേ ഞമ്മൾ എത്ര തവണ നല്ലോണം എക്സ്ർസൈസ്സ് ചെയ്യുന്നു അത് അതന്നെ നമ്മൾ നല്ല പാങ്ങല് നിലനിർത്തണം നമ്മൾ ശരീരം നിലനിർത്തണം ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് നല്ല നോക്കണം പിന്നെ പൈക്കുമ്പൊല്ലം അപ്പൊപ്പ തിന്നണം മാത്രമല്ല ജിമ്മിൽ പോയിട്ട് നല്ല എക്സസൈസ്സ് ചെയ്യണം നമ്മളെ ബോഡീനെ നമ്മന്നെ ആദിയില്ല ആദിയില്ല ചലഞ്ചാക്കണം ചലഞ്ചാക്കിട്ടാകുമ്പം നമ്മളുടെ ബോഡി ബൽതായിക്കൊണ്ട് നല്ല ഫിറ്റാക്കിക്കോണ്ട് പോവും ഞമ്മളെ ബോഡി ഫിറ്റായങ്കിൽ അതിലെ അതെല്ലാത്തിനും ഓരോരോ മറ്റെ സൈക്കിള് പോലെ എല്ലാ അപ്പ്രൊ ഇപ്പ്രൊ കണക്റ്റടന്നെ ഇപ്പം നമ്മൾ ജീവിതശൈലി ഇപ്പോൾ നമ്മൾ അപ്പം അപ്പോൾ ഫാസ്റ്റ് ഫുഡ്ഡും അങ്ങനത്തെ എന്തെല്ലാമോ തിന്നെങ്കിൽ ഈ ഇതൊന്നു നിക്ക് നമുക്ക് നേരെ നോക്കാങ്കയ്യ ഇപ്പം ഫാസ്റ്റ് ഫുഡ്ഡൊന്നു തിന്നാനേ കയ്യ തിന്നൂട അതിലുള്ള അജിനോമോട്ടോ അങ്ങനത്തെ എന്തെല്ലോ ഉണ്ട് അതെല്ലെ തിന്നെങ്കിൽ നമുക്കിപ്പോൾ നല്ലോണം ബയറ് വരും ഓടാൻ കയ്യ ഷുഗറ് കൊളസ്ട്രോള് അങ്ങനത്തെ എല്ലാ ബാണ്ടാത്ത കാര്യം ക്യാൻസറെല്ല വരും എപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡെല്ലാം തിന്നുങ്കിൽ അതെല്ലാം നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത് പോയിട്ട് ഇപ്പോൾ ക്യാൻസറെല്ല ക്യാൻസറെല്ല വന്നെങ്കിൽ ഇല്ലെ ഇപ്പം നമുക്ക് നമ്മുടെ പൊരേ വിക്കണം പിന്നെ പൊരേല്ല വിറ്റിട്ടെ പൈസ വേണ്ടെ ഈ ചിലവാക്കാൻ ഈ മരുന്നിനെല്ലാം അപ്പോൾ അപ്പോൾ നമ്മളെ മെൻ്റലി നമ്മൾ തലെല്ലാം പൊട്ട് ചിലപ്പം ആത്മഹത്യ ചെയ്യാനെല്ലാം തോന്നും ഇപ്പോൾ ക്യാൻസറെല്ലാം വന്നെങ്കിൽ അത്രത്തോളം നൊമ്പലൊ എല്ലാം ഉണ്ടാവും ഈ കീമോതറാപ്പി അങ്ങനത്തെ എന്തെല്ലാം ചെയ്യുമ്പോൾ മൂവത്ത് കരണ്ട് കയറ്റുന്നതല്ലേ അതല്ല നല്ല നൊമ്പലുണ്ടാവും ഇപ്പോൾ എന്താപ്പോ ആദ്യം വന്നത് ഹെൽത്താന്ന് ഹെൽത്ത് നന്നായ് നോക്കുക ഐ സിഗരറ്റ് അങ്ങനത്തെ എന്തോ വലിക്കാണ്ട് ഇപ്പോൾ ഇ ഫുട്ബോള് ക്രിക്കറ്റ് കളിക്കുമ്പോഴല്ലെ എന്ത് നല്ലപോലെ മെയിൻ്റെ ആക്കുവൊ ഓർ റിട്ടയറായിട്ടാകുമ്പോൽ അതേ ഇത് നോക്കണം ഇപ്പോൾ ഇങ്ങനെ തിന്നിട്ട് തിന്നാൻ വേണ്ടിട്ട് മാത്രമേ ജീവിക്കുന്നപോലെ കൂടാ ഇപ്പോൾ മേ ഹെൽത്ത് ഹെൽത്തിൻ്റെ കാര്യമെല്ലാം നോക്കണൊ നമുക്കെങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് ഈ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഇങ്ങനെ ഇണ്ട കച്ചറ ഫുഡൊന്നും കയിച്ചേങ്കിൽ ശരിയാകേല എനിക്ക് കുറച്ച് നല്ല എന്താ പറയാ നല്ല രാവിലെ എട് രാവിലെ അഞ്ചരക്ക് എണീറ്റിട്ട് നല്ല ഫുഡ്ഡ് ഈ നോ നോൺ വെജ് ഓയിൽ ഒന്നും ഇല്ലാത്ത നല്ല ഫുഡ് പിന്നെ നല്ല വെജ് ഫുഡ്ഡായിരിക്കണം കഴിക്കണത് പിന്നെ ഉച്ചക്ക് മുട്ട പാൽ അങ്ങനത്തെ എല്ല രാ വൈകുന്നേരം അങ്ങനത്തെ എന്തേലു തിന്നൊണം വെള്ളം കുടിക്കണം ഇടക്കിടക്ക് വെള്ളം കുടിക്കണം എപ്പോഴും ഞാനെല്ലാരോടും പറയലുണ്ട് വെള്ളം കുടിക്കാൻ തെങ്ങായിമാരോടെല്ല അങ്ങനെ വെള്ളം കുടിക്കണം പാപ്പം പിന്നെ ഈ നമുക്കീ പ്രായമായ ആൾക്കാർക്കെല്ല ഇല്ലെ നടക്കാനും എണീക്കാനും കയ്യാ ഇപ്പോൾ മുമ്പേ നമുക്ക് പ്രായവുല്ലൊ ഇപ്പോൾ ഞാൻ എന്തുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങണം എന്നല്ലെ ഏറ്റോം ബെസ്റ്റ് ടൈം തുടങ്ങണ്ട് ഇപ്പോഴെന്നല്ലെ ഇപ്പോൾ എക്സൈസ്സാക്കാ തുടങ്ങിയ നമുക്ക് പ്രായവോളം നമുക്ക് ആരേം ഡിപ്പൻട് ചെയ്യേണ്ടി വരില്ല നമുക്ക് നമ്മളെന്നെ ശരീരത്തെ നോക്കാം മരിക്കുവോളം നല്ല പാങ്ങല് ജീവിക്കാം ഇപ്പോൾ നമ്മളെ ഈ മെൻ്റലിയെ ഹെൽത്ത് അപ്പോൾ എല്ലാം നല്ലതാകും ഇപ്പോൾ പ്രായവുമ്പോൾ എല്ലാം ആരോഗ്യമല്ല നല്ലതുണ്ടെങ്കിൽ ഇല്ലെ നമുക്കങ്ങനെ മെൻ്റലി പ്രോബ്ലൊന്നും ഉണ്ടാവില്ല നമുക്കീ നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്സുണ്ടാവും എല്ലാത്തിനും ഇതങ്ക് കയ്യും ഇതങ്ക് കയ്യും ഇതങ്കെന്തായ്യാലും കയ്യും അങ്ങനെല്ലാം വിചാരിക്കും എത്ര ബയസുണ്ട് അങ്ക് കളിക്കാനായുള്ള ബയം ഇപ്പം ഗംഭീരെല്ല കണ്ടില്ലേ നാൽപ്പത്തിമൂന്ന് നാല്പത്തിനാല് വയസ്സായി എന്നിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ധോണി ധോണി ഉണ്ട് അത്ര അത്ര ഫിറ്റ്നസ് അറിയുവോ അവർക്കെല്ലം ധോണിക്കെല്ലാം ഇപ്പോൾ മുപ്പത്തൊന്പത് നാൽപ്പത് വയസാന്ന്ണ്ട് ആയീന്ന് തോന്നണ് മുപ്പത്തൊമ്പത് നാൽപ്പത് വയസായി എനിക്ക് എന്നിട്ടും അത്ര ഫിറ്റ്നസാണ് അറിയോ അവരെല്ലാം മെയ്ൻ്റെയിനാക്കുന്നത് ഇനിയന്നെ ഫിറ്റ്നസ് എല്ല നല്ല പാല്മേല വിരാട് കൊഹ്ലിയെല്ല കണ്ടാൽ ഫിറ്റ്നസ് ഫ്രീക്ക് എന്നാണ് അയ്യാളെല്ല ഉസൈബോൾട്ടിനെ കാട്ടിം സ്പീഡ് പായും വിരാട് കോഹ്ലി വിരാട് കോഹ്ലി സ്പീഡ് പായുന്നു പറഞ്ഞെങ്കിൽ ഈ തലയിൽ ഹെൽമെറ്റുണ്ടാവും കയ്യിൽ ഗ്ലൗസ്സുണ്ടാവും പാഡ്ഡുണ്ടാവും ഷൂസ്സ് പിന്നെ തൈ പാഡ്സ് പിന്നെ അങ്ങനത്തെ എന്തെല്ലാം പാഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ പാഡെല്ല ഇട്ടിട്ട് പായണം പായുമ്പോൾ അതെല്ലാം ഇട്ടിട്ട് പായുമ്പോൾ പാഞ്ഞിട്ട് ഇത്ര കിട്ടെന്ന് അതെല്ല ഇടാണ്ട് പായുമ്പെത്ര സ്പീഡുണ്ടാവുംന്ന് വിചാരിച്ച് നോക്കിയാൽ ഓർക്ക് പിന്നെ യോ യോ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെല്ല യോ യോ ടെസ്റ്റ് അങ്ങനത്തെ എന്തെല്ലാം ടെസ്റ്റൊണ്ട് അയിലെല്ലാം പാസ്സാവണ്ടെ എല്ലാ പാസാവാണങ്കിൽ കുറെ കഷ്ട്ടമുണ്ട് ഇങ്ങനെ നിന്നെങ്കിൽ പസ്സൊന്നും ആവില്ല നമ്മൾ എന്താക്കണം അർയോ അതിനനുസരിച്ചിട്ട് അദ്ധ്വാനിക്കണം ഇപ്പോൾ നല്ലോണം ഇടേല് അമ്മന്താനച്ചിൽ കളിച്ച അതേപോലെ ഉണ്ടാവും അതാണ് നമ്മൾ ശരീരം അങ്ങനെ സൂക്ഷിക്കണം ഇപ്പോൾ വിരാട് കോഹ്ലി എല്ലാം ഈ ഇഞ്ചുറി ആവാത്ത കുറെ കൊല്ലമായി ലാസ്റ്റ് പതിമൂന്ന് കൊല്ലത്തിൽ ഇങ്ങനെ ഒരിക്കൽ രണ്ട് വട്ടം എന്തൊ ഇഞ്ചൊറി ആയി അതെന്ത് വീൺട്ട് മുറിഞ്ഞതാണ് അങ്ങനെ എന്തോ ആയത് കയ്യിൽ പതിമൂന്ന് സ്റ്റിച്ച് ഉണ്ടായി അൻട്ടു കളിച്ചിന് ഇഞ്ചൊറി ഒന്നൊനിക്ക് എന്ത് കഥേല്ല അപ്പോൾ അതാണ് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ചെറിയ ഇഞ്ചൊറി ഒന്നും പ്രശ്നമേ അല്ല അതായത് അതെല്ല തടുക്കാണ്ട ആരോഗ്യവും കരുത്തെല്ലാം നമ്മളെ ശരീരത്തന്നെ ഉണ്ടാവും അങ്ങനെയാണ് എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ബരണ്ട ഇപ്പം നമുക്ക് ഐ നാച്ചറലി നമ്മൾ എന്താക്കണൊ നാച്ചൊറലി കിട്ടാത്ത സാധനം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം അതിനുള്ള കയിവുണ്ട നാച്ചൊറലി അതിനുള്ള കഴിവെന്തായാലും നമുക്ക് തരും ഇപ്പോൾ അങ്ങന്നാണ് ഇപ്പോൾ ഡെയിലി ബള്ളം കുടിച്ചിരിക്കുക പൊടിച്ച് മുട്ടയെല്ല ക്യാക്സ്സ് ചെയ്തെട്ക്കുന്ന അതെല്ലാം പോയി എക്സ്ർസൈസു എടുക്കണം സെല്ല് നാൽപ്പത് ഡയറ്റ് നാൽപ്പത് ബാക്കി ഇരുപത് നമ്മുടെ മെൻ്റലി നമ്മൾ ചലഞ്ചിങ് കാർ അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാണ് നമ്മൾ ബോഡി നല്ലോം ബിൽഡ് ചെയ്തെടുക്കണാങ്കിൽ ഇപ്പോൾ ഡെയിലി ജിമ്മിൽ പോകണം മിസ്സാക്കാണ്ട് കുറെ ഫാസ്റ്റ് ഫുഡ്ഡൊന്നു ഒയി തൊന്നൂടെ ചെയ്തുടാ ഫാസ്റ്റ് ഫുഡ്ഡ് ഈ ഷവർമ്മ ഗ്രില്ല് അങ്ങനത്തെ ഒന്നും തിന്നൂടേ ചെയ്തൂട അതെല്ലാം ഭയങ്കര പൊട്ടാ ശരീരത്തിന് എങ്ങനെന്ന് പറഞ്ഞെങ്കിൽ അതെല്ലാ ഈ കച്ചറയാണ് ഈ കച്ചറ ഇങ്ങനെ എന്തെല്ലാം തട്ടിക്കൂട്ടീട്ടുന്നാന്ന് തരുന്നതെന്ന് അതൊന്നും തിന്നൂടെ ചെയ്തൂട പിന്നെ വിരാട് കോഹ്ലിയെല്ലാണ് ഭയങ്കര നമ്മൾ ചലഞ്ചായിട്ട് നോക്കണ്ടെ വിരാട് കോഹ്ലിനെ പോലത്തെ ആൾക്കാരും അങ്ങനുണ്ടല്ലൊ അതെല്ലാമാണ് മുവോട്ടിവേഷനായിട്ട് എടുക്കേണ്ടത് വേറെ കുറെ എന്തോല്ല ഇപ്പോൾ അനക്ക് പറയേണ്ട ഇത്ര തന്നെ പിന്നെ ആരോഗ്യം ഇതെല്ലാം നമ്മൾ നമ്മൾ അന്നെ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്